ഞാൻ ജോലി ചെയ്തൊരു മൊബൈൽ ഷോപ്പിൽ ആയിരുന്നു അപ്പോൾ അവിടെ എങ്ങനെയാണെന്നു വച്ചാൽ ഈ ബാക്കിൽ ചാർജറൊക്കെ വയ്ക്കില്ലെ ചാർജറ് മൊബൈൽ ഫോൺ അതൊക്ക വയ്ക്കില്ലെ അത് എൻ്റെ കറക്ട് നേരെ ബാക്കിൽ ആയിരുന്നു അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഒരു കസ്റ്റമർ വന്നപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഒരു സംഭവം എടുത്ത് കൊടുത്തപ്പം ഗ്ലാസ് എൻ്റെ കാല് തട്ടിയിട്ട് പൊട്ടി താഴെ വീണ് അപ്പം അവിടുത്തെ മുതലാളി പറഞ്ഞു ഇത് മാറ്റിത്തരണം അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് അവിടുത്തെ സാലറിയും കുറവായിരുന്നു സാലറിയെന്ന് പറഞ്ഞാൽ ഡെയ്ലി വേജ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഡെയ്ലി കിട്ടുന്നത് ആകെ കിട്ടുന്നത് നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അതിനകത്ത് ഇത് മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല പിന്നെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കിട്ടിയ പൈസ എന്ത് വച്ചാൽ എന്തെങ്കിലും ആയിക്കോട്ടെ അവർക്കിനിയൊന്നും വരണ്ടായെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തത് മാറ്റി മാറ്റിക്കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു എന്നിട്ട് പുള്ളീനോട് പറഞ്ഞു ഞാൻ ഇത് മാറ്റിയിട്ട് വാരാമെന്ന് പറഞ്ഞ് അതിൻ്റെ അളവ് അല്ലെങ്കിൽ അത് തന്നെ ഞാൻ എന്ത് ചെയ്തു രണ്ട് പീസ് ആയി പോയിരുന്നു അപ്പോൾ രണ്ട് പീസ് ഞാൻ എടുത്ത് അവിടെ ഒരു ഗ്ലാസ്സ് കടയിൽ പോയിട്ട് അത് റെഡിയാക്കി കൊണ്ടുപോയി കൊടുത്തു അതിന് എൺപത് തൊണ്ണൂറ് എങ്ങാണ്ട് ആയിരുന്നു ഇത്രയും പൈസയ്ക്ക് ഞാൻ അത് പോയി മാറ്റികൊടുത്തു പിന്നെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ആകെ നൂറ്റി അമ്പത് രൂപയല്ലേ ഞാൻ പണിയെടുക്കുന്നത് ഞാൻ എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ മുതലാളിയോട് പറഞ്ഞു ഇനി ഗ്ലാസും മാറ്റിത്തന്നു എനിക്ക് എന്തായാലും പൈസ കൂട്ടിത്തരണം ഇല്ലാണ്ട് ഞാൻ ഇവിടെ നിൽക്കില്ലയെന്ന് പറഞ്ഞു അപ്പോൾ മുതലാളി പറഞ്ഞു എന്നോട് ഇരുന്നൂറ് ആക്കിത്തരാമെന്ന് പിന്നെ അധികകാലം ഞാൻ അവിടെ നിന്നില്ല കാരണം പുള്ളീൻ്റെ സ്വഭാവം അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അധികകാലം അവിടെ നിന്നില്ല പിന്നെ കുറച്ച് നാൾ നിന്നു ഇതാണ് എനിക്ക് അവിടെ ഉണ്ടായ തെറ്റ് എന്നു പറഞ്ഞാൽ അതിനെ ഞാൻ ഇങ്ങനെയാണ് മാനേജ് ചെയ്തെടുത്തത് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ചെയ്ത് എടുത്തത് ഇങ്ങനെയാണ്